ഞങ്ങളെയവിടെ എന്നുപറഞ്ഞാൽ ഇപ്പോൾ ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജാണുള്ളത് അവിടെ പിന്നെ ഭയങ്കര തിരക്കല്ലേ തിരക്കുകൊണ്ട് ഈ ഞങ്ങൾ ഇ സി ജി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുദിവസം പോയിട്ട് വേദന വന്ന്കാണ്ട് കൊണ്ടോയതേനി അപ്പോൾ ഇ സി ജി എടുക്കാൻ വേണ്ടി പറഞ്ഞു ഇ സി ജി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കിടന്നുകൊണ്ട് ഇ സി ജി എടുക്കാൻ ബെഡ്ഡില്ലാ പിന്നെ വീൽചെയറിൽ ഇരുന്നുകൊണ്ടാണ് ഇ സി ജി എടുത്തത് അവിടെ അഡ്മിറ്റായിക്കൊണ്ട് അവിടുന്ന് പോരുന്നത് വരെ ഒരു ബെഡ്ഡും ഇല്ല ഇരിക്കാനും സ്ഥലം ഇല്ല നിൽക്കാനും സ്ഥലം ഇല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടേനി പിന്നെ എൻ്റെ അനിയത്തിക്ക് ആമാശയത്തിൽ മുഴയുണ്ടായിട്ട് ഒരു ഓപറേഷൻ വേണ്ടിയിരുന്നു പിന്നെ ഒരനുഭവം അതാണ് എന്നിട്ട് ആ ഓപറേഷൻ കഴിഞ്ഞാണ്ട് ഡിസ്ചാർജായി പോരുമ്പോൾ ഇവർ അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ വച്ച പഞ്ഞി എടുക്കാൻ മറന്നു അതെടുത്തില്ല എന്നിട്ട് അതിനും വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് മൂത്രമൊഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഗതികേട് അപ്പോൾ പിന്നെ വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇവലീ പഞ്ഞി എടുക്കാത്തത് അറിയുന്നത് എന്നിട്ടാ പഞ്ഞി വയറിൻ്റെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് പിന്നെ മണത്ത് പിന്നെയത് എന്തൊക്കെയോ ക്ലീൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഓളും കുറേ കഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോൾ പത്രത്തിലൊക്കെ കാണല്ലേ നമ്മളിങ്ങനെ കത്രിക വയറിൻ്റെ ഉള്ളിൽവെച്ച് മറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഒക്കെയാണോല് അത് കണ്ട്കാണ്ട് എടുത്തത് ആ പെൺകുട്ടി എന്നും ഹോസ്പിറ്റലിലാണ് അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്രത്തിൽ വാർത്ത ഇങ്ങനെ കാണല്ലേ അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളേ ഉള്ളൂ